ഇന്നത്തെ ഫാഷൻ ട്രെൻഡുകളെ ക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഫാഷൻ ട്രെൻഡ് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത് സിനിമാ കഥാപാത്രങ്ങളെയാണ് സിനിമയിൽ അവരുപയോഗിക്കുന്ന അവരുടെ ഡ്രസ്സ് അവരുടെ ഡ്രസ്സിങ്ങ് സെൻസ് ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിലാണ് സിനിമയിൽ അണിഞ്ഞൊരുങ്ങി വരുന്നത് അത് കൂടുതലായിട്ടും അനുകരിക്കാനാണ് ഇന്നത്തെ തലമുറ ശ്രമിക്കുന്നത് സ്ത്രീകളായിക്കോട്ടെ സിനിമാനടികൾ ഉപവയോഗിക്കുന്ന സാരികള് അവരുപയോഗിക്കുന്ന സെൽവാറുകള് അവരുപയോഗിക്കുന്ന ചെരിപ്പുകള് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഫ്ലാറ്റ്സായിരുന്നു കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫ്ലാറ്റ്സാണോ അല്ലാ ഇപ്പോൾ കൂടുതലും ഹീൽസാണ് അതൊക്കെ സിനിമാനടികളിൽ നിന്ന് ഇൻസ്പേർഡായിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ബോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുപയോഗിക്കുന്ന പാൻറ്റ് ഷൂസ് പാൻറ്റ്സ് പണ്ടൊക്കെ സ്കിൻ ഫിറ്റായിട്ടുള്ള പാൻറ്റുകളായിരുന്നു ബോയ്സ് ഉപയോഗിക്കുന്നത് ഇപ്പൊക്കെ ബാഗീ പാൻറ്റ്സ് ക്രോക്സ് ഒക്കെയാണ് അതൊക്കെ കൂടുതലായിട്ടും സിനിമാനടന്മാരിൽ നിന്നും ഇൻസ്പേർഡായിട്ടുള്ളതാണ് ടോളിവുഡ് ബോളിവുഡ് സിനിമകളിൽ നിന്നും അവർ ഇൻസ്പേർഡായിട്ട് ചെയ്യുന്നതാണ് വിജയിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട് ഒര് ഉള്ളിലൊര് ടീഷർട്ടും പുറത്തൊരു ശ്രഗ്ഗും ഇട്ടിട്ടുള്ള ഒരു സ്റ്റൈൽ അതാണ് കൂടുതലായിട്ടും തമിഴ്സ് ബോയ്സ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴം തോന്നിയിട്ടുണ്ട് വിജയിൻ്റെ ട്രെൻഡ് അനുകരിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലായിക്കോട്ടെ മമ്മൂട്ടിയാണ് ഒര് ട്രെൻഡ് സെറ്റർ ഇപ്പൊത്തെന്നെ എഴുപത്തി നാല് വയസ്സായിട്ടുള്ള മമ്മൂട്ടി അടിപൊളിയായിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ലുക്കിലാണ് വരുന്നത് അത് യുവ തലമുറയ്ക്ക് വളരെയധികം ഇൻസ്പിരെഷനാണ്